കുടുംബത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ഞാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇടപഴകുന്ന ആളുകളിൽ നിന്നുമാണ് എന്ന് പറയേണ്ടിവരും കാരണം അവരിൽനിന്നാണ് പല കാര്യങ്ങളും കഥകളും ഐതിഹ്യങ്ങളും അതുപോലെ മറ്റുള്ള വ്യക്തിത്വങ്ങളെ കുറിച്ചുള്ള അറിവുകളും ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ പറ്റിയുള്ള എനിക്ക് അറിയാൻ വയ്യാത്ത പഴയ കാര്യങ്ങളുമൊക്കെ കഥകളുമൊക്കെ കേൾക്കുന്നത് അപ്പോള് ചെറുപ്പം തൊട്ടേ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതിലൂടെയാണ് എൻ്റെ സാംസ്കാരികസ്വത്വം രൂപപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഐതിഹ്യം പറയാനാണെങ്കില് ഇപ്പോള് കേരളം ഉണ്ടായത് പരശുരാമൻ മഴു എറിഞ്ഞിട്ടാണെന്ന് ഉള്ള ഒരു ഐതിഹ്യമുണ്ട് അതുപോലെതന്നെ പണ്ട് കേരളം ഭരിച്ചിരുന്നത് മാവേലി എന്ന് പറയുന്നൊരു മഹാബലി എന്ന് പറയുന്നൊരു നല്ലവനായ അസുര രാജാവാണെന്നും അതുപോലെതന്നെ രാജാവിൻ്റെ ഭരണത്തിൻ്റെ സമയത്ത് കേരളത്തില് കള്ളവും ചതിയും ഒന്നുമില്ല ആരും അങ്ങോട്ടുമിങ്ങോട്ടും ചതിക്കുകയോ ദേഷ്യം പറയുകയോ ഒന്നും ചെയ്തിരുന്നില്ല എന്നൊക്കെ ഉള്ള ഐതിഹ്യങ്ങളുണ്ട് അങ്ങനെ അത് കണ്ടിട്ട് അവരുടെ ഭരണവും നല്ലൊരു ജീവിതവും കണ്ട് അസൂയ വന്ന ദേവന്മാര് ദേവന്മാര് ഭൂമിയിലേക്ക് വേഷം മാറി വരികയും അതുപോലെതന്നെ മഹാബലീനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരു ഐതിഹ്യമാണ് കേരളത്തിനുള്ളത് മഹാബലി എല്ലാ വർഷവും പാതാളത്തിൽ നിന്ന് വർഷത്തിൽ ഒരു തവണ തൻ്റെ ജനങ്ങളെ കാണാനായിട്ട് കേരളത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്ന് പറയുന്നു അതാണ് നമ്മള് കേരളീയരെല്ലാവരും ഓണമായിട്ട് ആഘോഷിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോള് അങ്ങനെയുള്ള ഐതിഹ്യങ്ങളൊക്കെ ഒരുപാട് കേരളത്തിന് ഉണ്ട് അതുപോലെ തന്നെ പ്രചോദനാത്മകമായ ഒരു വ്യക്തിത്വം എന്ന് പറയുമ്പോള് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മഹാത്മാഗാന്ധിയെയും ശ്രീനാരായണ ഗുരുവിനെയും വിവേകാനന്ദനെയും ഒക്കെയാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് എന്താണു പറയുക ആള് ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഇന്ത്യയെ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽനിന്നും മോചിപ്പിക്കാനായിട്ട് ഒരുപാട് ഏറെ പ്രയത്നിച്ച ഒരാളാണ് മാഹാത്മാഗാന്ധി ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചെങ്കിലും ആളുടെ വിദ്യാഭ്യാസം ഒക്കെ വെളിയിൽ വെളിയിലായിരുന്നു സൗത്ത് ആഫ്രിക്കയിലായിരുന്നപ്പോഴാണ് ഇന്ത്യയിലെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയും ഇവിടുത്തെ പട്ടിണിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തൻ്റെ വസ്ത്രംപോലും ഉപേക്ഷിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്കുവേണ്ടി അവരുടെ മുന്നിൽ നിന്ന് അവരിൽ ഒരാളായി നിന്ന് അവരെ നേതൃത്വം കൊടുത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി പോരാടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് മഹാത്മാഗാന്ധി പിന്നെ ശ്രീനാരായണ ഗുരു ആണെങ്കിലും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന മഹത്തായ ഒരു തത്വമാണ് കേരള സമൂഹത്തെ ഇന്ത്യൻ സമൂഹത്തിന് മുന്നിലേക്ക് വച്ചത് എല്ലാവരെയും ഒരുപോലെ കാണാനായിട്ടുള്ള ഒരു മനസ്സ് എല്ലാവർ നമ്മുടെയൊക്കെ എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ളൊരു വലിയൊരു സന്ദേശമാണ് അദ്ദേഹം എല്ലാം നമുക്ക് തരാനായിട്ട് ആഗ്രഹിച്ചത്